ഞാൻ തൃശ്ശൂരിൽ നിന്നു വിളിക്കുകയാണ് എൻ്റെ ഞാൻ ഫുഡ് ഓർഡറ് ചെയ്തിരുന്നു ഫുഡ് ബിരിയാണിയും ഒരു ഒരു പ്ലെയ്റ്റ് ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തിരുന്നു പക്ഷേ അതിൽ ഓർഡർ പേയ്മെൻ്റ് ആയിട്ടില്ല ഓർഡർ ഞാൻ ചെയ്ത് പേയ്മെൻ്റ് അടച്ചിട്ടുണ്ട് പക്ഷേ പൈസ എൻ്റേത് പോയിട്ടുണ്ട് റെയിഞ്ചില്ലാത്തതാണോ എന്നോ മറ്റു കാരണങ്ങൾ കൊണ്ടാണോ എന്നോ എനിക്കറിയില്ല അത് ഓർഡറായിട്ടില്ല അപ്പോൾ അതൊന്ന് ആപ്പോ വെബ്സൈറ്റോ എടുത്തിട്ട് അത് പേയ്മെൻ്റ് കൺഫർമേഷൻ വന്നിട്ടുണ്ടോ ഒന്ന് പരിശോധിക്കുമോ